ഒറ്റ ദിവസം കൊണ്ട് ഞാൻ നടത്തിയ ദൈർഘ്യമേറിയ ഹൈക്കിങ് ഹൈക്കിങ്ന്ന് പറയുന്നത് ഒരു ദിവസം ഒരു തവണ എനിക്ക് കാശ്മീരി പോകാന് ഒരവസരം കിട്ടി അവിടുന്ന് ഞാൻ ഒരു മഞ്ഞ് മലയിലൂടെ ഒരു ഹൈക്കിങ് നടത്തി അതാണ് ഏറ്റവും ദൈർഘ്യമേറിയത് ആയിരിക്കില്ല ഒരു ഒരു പക്ഷേ മെമ്മറബ്ളായ ഒരു ഹൈക്കിങ്ങെന്ന് പറയുന്നത് ആയിരിക്കും കാരണം ഇതുവരെ ഞാൻ നടത്ത്യേനേക്കാളും വ്യത്യസ്തമായ ഒരനുഭവം ആയിരുന്നു സാധാ നമ്മുടെ ഈ നാട്ടിൽക്കൂടെ നടക്കുന്ന പോലൊരു അനുഭവമായിരുന്നില്ല അത് തികച്ചും വ്യത്യസ്തമായ ഒരനുഭവമായിരുന്നു അതിലൂടെ കുറെ തമാശകാഴ്ചകൾ കാണാൻ സാധിച്ചു അതാണ് മെയിൻ കാര്യമായിട്ട് കാരണം ഇവിടെ നടക്കുന്ന പോലെ നമ്മൾ അവിടെ നടന്നിട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഴും ഭയങ്കര തെന്നൽ ഉള്ള സ്ഥലമാണ് നടക്കുന്ന സ്ഥലം ഭയങ്കര കെയർ ഫുള്ളായിട്ട് നടക്കണം അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ഒരു ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള അതേ സമയം തന്നെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ഹൈക്കിങ്ങായിട്ടാണ് കാശ്മീരിലെ ആ ഹൈക്കിങെനിക്ക് തോന്നിയത് അതിനോടൊപ്പം തന്നെ മനോഹരമായ കുറെ കാഴ്ചകൾ കാണാൻ പറ്റി കുറെ മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ ആ പോക്കിലൂടെ ചെയ്യാൻ സാധിച്ചു അതിലൊരു അനുഭവമായിരുന്നു ഒരു ഞങ്ങളെ തൊട്ടടുത്തൂടെ പോയപ്പം അവിടെ ഇങ്ങനെ കുരങ്ങമാർ ഉണ്ടാവുന്നൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ അവിടെ വലിയ കുരങ്ങന്മാരും വലിയ പട്ടികളും അക്കെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കയ്യിൽ അടുത്ത് പിടിച്ചില്ലെങ്കിൽ അത് സാധനവും കൊണ്ടോണ തരത്തിൽ ഉള്ള പ്രകൃതം ആയിരുന്നു അവരുടെ ഒക്കെ അത് താഴ്വാരങ്ങളിൽ ആയിരുന്നു മെയിനായിട്ടും മോളിലോട്ട് പോകുമ്പം വലിയ ജീവികൾ ഒന്നും ഇല്ല ശാന്തമായിട്ട് പോയിട്ട് വരാം പിന്നെ ഞങ്ങളെ കൂടെ പോയ കുറെ കൂട്ടുകാരിൽ കുറെ പേര് വീഴുകയും ഭയങ്കര സ്ലിപ്പറിയായിട്ട് നടക്കുകയൊക്കെ ചെയ്തു ഭയങ്കര രസകരമായ അനുഭവമായിരുന്നു അതുപോലെ തന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു കാശ്മീരിലെ പോക്ക് പിന്നെ ബുദ്ധിമുട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ സാധിക്കില്ല നമ്മൾ അതിന് വേണ്ടി സ്പെഷ്യലായിട്ടുള്ള ചെരുപ്പിടണം എൻ്റെ പോയ ഫ്രണ്ടിലൊരാൾക്ക് കറക്റ്റ് അതിന് ആ തരത്തിൽ ഉള്ള ചെരുപ്പില്ലായിരുന്നു അതുകൊണ്ട് പോകുന്ന വഴിക്കെല്ലാം എപ്പോഴും ഇങ്ങനെ തെന്നലായിരുന്നു അതിൻ്റെ സ്പൈറ്റൊക്കെ ഒരുവിധം പോയിട്ടുള്ള ഒരു ചെരുപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആ പോകുന്ന വഴിക്ക് എല്ലാം നല്ലപോലെ തെന്നി തെന്നിയാണ് പൊയ്ക്കോണ്ടിരുന്നത് അത് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റി ആ ഒരു യാത്രയിലൂടെ കുറെ കൂട്ടുകാരെ കൂട്ടുകാരെ പരിചയപ്പെട്ടു എങ്കിലും ഒരു ലോങ് ലാസ്റ്റിംഗ് കൂട്ടുകാർ അല്ലായിരുന്നു എങ്കിലും നല്ലൊരു അനുഭവങ്ങൾ കിട്ടുന്ന തരത്തിൽ ഉള്ള യാത്രയായിരുന്നു അത് പിന്നെ ഇവിടെ യാത്ര ചെയ്യുന്നത് പോലെ അല്ല അത് അതിനേക്കാളും വ്യത്യസ്തമായ ഒരനുഭവം അതായത് നമ്മൾ അതിന് അനുസരിച്ചുള്ള സ്യൂട്ടബ്ളായിട്ടുള്ള ഡ്രസ്സിങ്ങും ആ ഒരു മനോഭാവം ഒക്കെ കരുതി വേണം അങ്ങോട്ടൊക്കെ നമ്മൾ ട്രക്കിങ്ങ് നടത്താൻ വളരെ രസകരമായ ഒരനുഭവമായിരുന്നു പിന്നെ അതൊരു ദിവസമാണ് പോകാൻ സാധിച്ചോള്ളെങ്കിലും ഒരു തവണ പോയി പിന്നെ അതൊരിക്കലും പോകാൻ സാധിക്കാത്ത ഒരു സ്ഥലമായിരുന്നു ഇവിടുത്തെ ക്ലൈമറ്റിന് അതായത് ഞാൻ എന്നും പോകുന്ന ക്ലൈമറ്റിനേക്കാളും ഭയങ്കര ബുദ്ധിമിട്ടേറിയ ക്ലൈമറ്റായിരുന്നു അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അതൊരിക്കലും ഇനി കയറാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും ഒരു അനുഭവം എന്ന രീതിയിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം നൽകാൻ അതെന്നെ സഹായിച്ചു പിന്നെ അവിടെ അവിടെ ഒള്ള ഗൈഡുകൾ എപ്പോഴും നമ്മൾ വീഴുന്ന വരെ എഴുന്നേൽപ്പിക്കാനും നമുക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാനും നമ്മളും മടുത്തിരിക്കുമ്പം നമുക്ക് അടുത്ത് വന്ന് തമാശ പറഞ്ഞ് തരാനും ഒക്കെ അവർ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭയങ്കരവായിട്ട് രസകരമായ അനുഭവമായിരുന്നു അത് പിന്നെ അവിടെ നമ്മൾ പോകുമ്പം അവർ അവിടെ ഇഷ്ടം പോലെ ഇവിടെ ഇവിടത്തേക്കാളും ഹൈക്കിങ്ങിനേക്കാളും വ്യത്യസ്തമായി തോന്നിയത് അവിടെ പല സ്ഥലങ്ങളിലും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ കൂടെ കൊണ്ടോണ്ടാവശ്യൊന്നു ഇല്ല അവിടെ എപ്പോഴും ഹൈക്ക് ചെയ്യാൻ ആൾക്കാർ ഉള്ളത് കൊണ്ട് അവിടെ ഇടക്കിടക്ക് ഭക്ഷണങ്ങൾ ക്രമീകരിച്ചിട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഭക്ഷണത്തിന് നമുക്ക് കൂടെ കൊണ്ടോണ്ടതോ എടുക്കേണ്ടെയോ ആവശ്യമൊന്നും വന്നില്ല ജെസ്റ്റ് വെള്ളം മാത്രം കരുതിയാൽ മതിയാകും പിന്നെ നമ്മൾ ഹൈക്കിങ്ങിന് കൊണ്ടോവുന്ന സാധാനം ഐറ്റംസൊക്കെ കൊണ്ടോയാൽ മതിയായിരിക്കും ഇതൊക്കെ ആയിരുന്നു എനിക്ക് തോന്നിയ ഏറ്റവും നല്ല അനുഭവങ്ങളിൽ ഒന്ന് അവിടെ ഇതായിരുന്നു എനിക്ക് ഏറ്റവും മെമ്മറബിളായിട്ടുള്ള എൻ്റെ ഹൈക്കിങ്ങെന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ